ഇപ്പോഴത്തെ പുതിയ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഗൂഗിൾ പേ ഏപ്പിൾ പേ ഇതൊക്കെ വളരെ ഉപയോഗപ്രദമാണ് കാരണം ഞങ്ങൾ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിയാലും കാശില്ലെങ്കിലും അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മുന്നത്തെ കാലത്താണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ കുറേ ദിവസങ്ങളെടുക്കും മറ്റേ ആളുടെ അക്കൗണ്ടിൽ എത്താൻ ഇപ്പോൾ ഒരു ജി പേ ഒരു ഒരു തൊടലിൽ തന്നെ പൈസ അപ്പോഴത്തേക്കും ട്രാൻസ്ഫർ ആയി കിട്ടും എത്ര ചെറിയ എമൗണ്ട് ആയാലും നമുക്കത് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം പേഴ്സ് എടുത്ത് പോകണ്ട ആവശ്യമോ പേഴ്സിൽ പൈസ വെച്ചു പോകേണ്ട ആവശ്യമോ ഇപ്പോൾ നമുക്ക് വരുന്നില്ല അത് പക്ഷെയെങ്കിലും കുറേ പ്രായമുള്ളവർക്കാണ് അതിനെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ പ്രായമുള്ളവർക്കാണെങ്കിൽ ചിലർക്ക് മൊബൈലൊന്നും ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടാകും എന്നാലും കുഴപ്പമില്ലാണ്ട് അവരും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തോട് അവരും യോജിച്ചുവരുകയാണ്